ഹലോ ചേട്ടാ ചേട്ടൻ്റെ പിന്നെ കല്ല്യാണം ഈ എടയില്ലായിരുന്നോ കഴിഞ്ഞത് അപ്പം എനിക്കാണേ കുറച്ചു കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നത് ഇപ്പമാണെങ്കിൽ ഭാര്യയുടെ ഈ സർ നെയിമൊക്കെ മാറ്റണ്ടേ അപ്പം അതിനെക്കുറിച്ചൊക്കെ ഒന്നു പറയാമോ ഇപ്പം എനിക്കാണന്നേ പാസ്സ് ബുക്ക് പാസ്സ് പോർട്ട് എടുക്കണമായിരുന്നേ അപ്പം നമ്മൾ ഈ പേരു മാറ്റുമ്പം കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേ അപ്പം അതൊക്കെ എങ്ങനാ സംഭവം പിന്നെ നമ്മൾ ഇതെങ്ങോട്ടാണ് ഈ പോകേണ്ടത് അതായത് ഈ പാസ്സ് പോർട്ടൊക്കെ അപ്പ് ഡേറ്റ് ചെയ്യാനും അതൊക്കെ എങ്ങോട്ടാണ് പോകേണ്ടത് നമ്മളിപ്പം ആദ്യമേ ഈ ആധാർ കാർഡായിരിക്കുമല്ലേ അപ്പ് ഡേറ്റ് ചെയ്യേണ്ടേ ആധാർ കാർഡ് അപ്പ് ഡേറ്റായിട്ടാണോ നമ്മളീ പാസ്സ് പോർട്ടൊക്കെ അപ്പ് ഡേറ്റ് ചെയ്യാൻ കൊടുക്കണ്ടേ അപ്പം അതിനു മുമ്പേ ഈ പേരു മാറണ്ടെ അപ്പം എൻ ഉള്ള സർ നെയിമപ്പം മാറ്റാനായിട്ട് ഞാൻ പഞ്ചായത്തിൽ പോയാൽ മതിയോ അതോ എൻ്റെ പഞ്ചായത്തിൽ പോകണോ അതോ അവളുടെ പഞ്ചായത്തിലാണോ പോകണ്ടേ പിന്നെ ഈ നമ്മളീ പുത്തൻ പാസ്സ് ബുക്ക് പാസ്സ് പോർട്ടെടുക്കുമ്പോൾ പോലീസൊക്കെ വരുമെന്നിങ്ങനെ കേട്ട് അപ്പം അവർ ഇങ്ങനത്തെ ചോദ്യമൊക്കെയിരിക്കും ചോദിക്കുന്നത് നമ്മുടെ വീട്ടിലോട്ട് കയറി വന്നിട്ട് എൻ്റെ കുറേ കാര്യമൊക്കെ കുറേ ശ്രദ്ധിച്ചെന്തോ അങ്ങനെ എന്തൊക്കെയോ കാര്യമൊക്കെ അവർ നോക്കുമെന്നൊക്കെ ഞാനിങ്ങനെ അറിഞ്ഞ് അതെന്താണ് സംഭവം അതൊന്നു പറയാമോ അപ്പം ചേട്ടന് പാസ്സ് പോർട്ടെടുത്തായിരുന്നോ എന്നാൽ ഭാര്യക്ക് പാസ്സ് പോർട്ടെടുത്തായിരുന്നോ അപ്പം അതായത് ഇതൊക്കെയൊന്നു പറയണേ